വായനയിലേക്ക് വന്നെത്തിയത് എങ്ങനെ എന്നതിന് എങ്ങനെയാണ് അതിന് മറുപടി പറയുക വായന നമ്മുടെ തുടക്കം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ വായനയുണ്ട് കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വായനയിലൂടെയാണ് നമ്മൾ വളരുന്നത് വായിച്ചാൽ മാത്രമേ വളരുകയുള്ളു വായന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല കാരണം ഒരുപാട് അറിവുകൾ വായനയിലൂടെയാണ് ലഭിക്കുക വായന നമ്മളെ വളരാൻ സഹായിക്കുന്ന വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണല്ലോ പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വായിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ ആശയങ്ങൾ നമുക്ക് കൂടുതൽ പ്രകടിക്കാൻ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളു വായന നമ്മുടെ ചിന്താ ലോകത്തിലേക്ക് നയിക്കുന്നു വായനയിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ വികാസം ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസം നടക്കുന്നത് വായനയിലൂടെയാണ് വായന മനുഷ്യനെ വളരെ അധികം ചിന്തിക്കുവാനും ചിന്താഗിതമായ കാര്യങ്ങൾ ചെയ്യുവാനും സഹായിക്കുന്നു വായന മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു വായനയിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളു ഒരുപാട് വളരുവാനും ഒരുപാട് ആശയങ്ങൾ പങ്കു വയ്ക്കുവാനും നല്ല വായനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു വായന ഒരു മനുഷ്യനെ വായന നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഒരു നല്ല കൂട്ടുകാരനെ പോലെ പുസ്തകങ്ങളെ കാണുകയാണെങ്കിൽ നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്താൽ നമുക്ക് ഒരു നല്ല കൂട്ടുക്കാരൻ്റെ എല്ലാ സേവനങ്ങളും ആ നല്ല പുസ്തകങ്ങൾ നമുക്ക് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ വായന എപ്പോഴും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആത്മീയ ഭക്ഷണമാണ് വായന എന്ന് പറയുന്നത് വായിക്കുമ്പോൾ വ നമ്മൾ കൂടുതൽ കൂടുതൽ വളരുകയും വായിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ തളരുകയുമാണ് ചെയ്യുക വായനയിലൂടെ മാത്രമേ മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസം സംഭവിക്കുകയുള്ളൂ എപ്പോഴും എങ്ങനെയും എന്തും എന്താണെന്ന് പറയുവാനുള്ള അറിവ് ഇല്ലെങ്കിൽ ഏതൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത് വായനയിലൂടെ വായനയിലൂടെ മാത്രമാണ് വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അറിയുവാനും സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം വായന എന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റി വയ്ക്കപ്പെടാത്ത ഒരു കാര്യമായി നമ്മൾ അതിനെ അംഗീകരിക്കുക വായന എനിക്ക് വളരെ അധികം എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വായനയിലൂടെ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ഇന്ന് ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലമാണ് എങ്കിൽ പോലും പുസ്തകങ്ങൾ നമ്മുടെ ചങ്ങാതികളായി മാറണം ഉറ്റ സുഹൃത്തായി മാറണം പുസ്തകങ്ങൾ നമ്മുടെ നമ്മുടെ എല്ലാം എല്ലാമായി നമ്മള് കണ്ടാൽ നമ്മുടെ നമ്മുടെ ഒരുപാട് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വായനയിലൂടെ ഒക്കെ അറിയുവാനും ആ ഒരു പക്ഷെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനും അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നത് നല്ല വായനയിലൂടെ മാത്രമാണ് നല്ല വായന ഒരു മനുഷ്യനെ നന്നായി ജീവിക്കാനും സഹായിക്കുന്നു